കരയിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നീന്തുമ്പോൾ സുരക്ഷിതരായിരിക്കാൻ ഒത്തിരി വഴികൾ നമുക്കുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളെപ്പോഴും ഒത്തിരി നീന്താതിരിക്കുക കാരണം നമ്മക്കതൊരു നമ്മുടെ നമുക്കത് സുരക്ഷിതം അല്ല എന്ന് പറഞ്ഞാൽ ഒറ്റക്കെന്നും പോയി ഇപ്പോഴും ഇങ്ങനെ നീന്താൻ കഴിവതും കൂടുതലാളുകളായിട്ട് ഇങ്ങനെയുള്ള ഇത്ര അധികം ദൂരം നീന്തുക അതിൽ കൂടുതൽ ആളുകളായിട്ട് പോയി നീന്താൻ ശ്രമിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പറ്റുന്നത് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വണ്ടീടെ ട്യൂബൊക്കെ നമുക്ക് എയർ ഫില്ല് ചെയ്ത് നമുക്കെങ്ങനെ ഉപയോഗിക്കാം നീന്താനൊക്കെ അത് വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് അതൊക്കെ വളരെ ഉപകാരമാണ് പിന്നെ ഈ വലിയ ജലാശയങ്ങളിലൊക്കെ നല്ല അടിയൊഴുക്കും ആഴോള്ളടുത്തൊക്കെ ഒറ്റക്ക് പ്രധാനപ്പെട്ട കാര്യം എങ്ങും നമ്മളൊറ്റക്ക് പോയി നീന്തരുത് എന്താണെന്ന് വെച്ചാൽ ആളും അനക്കോം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മൾ നമ്മളിപ്പം ഒരു കാട്ടിൽ നിൽക്കുവാ അതിൻ്റെപ്പുറം നമുക്ക് കര കാണാം ഒരു കരയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നൊരു ആളനക്കോള്ള സ്ഥലം കാണാം എന്നു വച്ചാൽ ആരേം കാണുന്നില്ല നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും അതൊരാളനക്കോള്ള ഇപ്പം നമുക്ക് നല്ല നീളത്തിലൊള്ളൊരു ജലാശയമാണ് നമുക്ക് നീന്തിക്കടക്കണം നമ്മളെ കൊണ്ട് പറ്റുവോന്നറിയത്തില്ല ഒറ്റക്കുള്ള സാഹചര്യാണ് എന്നാലും നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മള് രണ്ടും കൽപ്പിച്ചെടുത്ത് നീന്തുന്ന ഒരവസ്ഥ ഉണ്ടാവും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടാകണം നമുക്ക് എവിടെ വച്ചേലും നമുക്ക് ഇപ്പം നമുക്കറിയത്തില്ല അവിടെ അടിയൊഴുക്കുണ്ടോ പാറ നല്ല വഴുക്കലുള്ള പാറകളൊക്കെ കാണും നല്ല അടിയൊഴുക്ക് കാണും ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല പായൽ നമുക്കറിയാത്ത വശം നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഇതുപോലുള്ള ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ട്രാക്കിങ് അങ്ങനൊക്കെ പോകുവാണെങ്കിൽ പോലും ഇപ്പം ജലാശയം അത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെന്തേലക്കെ ഒരു സുരക്ഷ ആയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു എന്തേലും ഒരു ഉപകരണങ്ങളോ എന്തേലും ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് പോലുള്ള എന്തേലൊക്കെ ഈ വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സുരക്ഷക്കായിട്ടാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയെല്ലാ അതുപോലുള്ള സാഹചര്യങ്ങളിപ്പം നമ്മളിപ്പം നീന്തുന്നു ഇപ്പം അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞപ്പം നല്ല നീളം നമ്മൾ പെട്ട് പോയിരിക്കുന്ന ഒരവസ്ഥ ഒറ്റക്ക് അപ്പം നമ്മൾ ആ വെള്ളത്തിലോട്ട് നീന്തണം നമുക്ക് വേറെ മാർഗ്ഗം ഇല്ല നീന്തിയേ പറ്റാത്തൊള്ളു നമ്മുടെ കയ്യിൽ സുരക്ഷാ മാർഗ്ഗങ്ങൾ സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മൾ നീന്താൻ ചെല്ലുന്നു നീന്താൻ ചെല്ലുമ്പോൾ പകുതി വരെ കുഴപ്പമില്ലാതെ പോകുവാണ് അപ്പം നമുക്ക് അവിടം വരെ അടി ഒഴുക്കുല്ലാ ഒന്നും ഇല്ല നമുക്ക് കാൽ വെയ്ക്കുന്ന രീതിലാണ് ചിലപ്പം ആഴം തോന്നിക്കുന്നത് പക്ഷേ നമ്മളങ്ങോട് കുറച്ച് മുമ്പോട്ട് പോയ് കഴിയുമ്പോൾ നമ്മുടെ കണ്ട്രോള് പോവുകയും ഭയങ്കര അടിയൊഴുക്കിലേക്ക് പോവുകയും നമ്മൾ നമ്മുടെ നമ്മുടെ കൈകളിൽ നിന്നെല്ലാം നമുക്ക് നീന്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും നമ്മൾ ഒഴുകി പോവുകയും ചെയ്യും അപ്പോൾ ചെന്ന് നമ്മൾ നേരെ വലിയ പാറക്കെട്ടുകളും വഴുക്കലൊള്ള പായലുകളൊള്ള പാറക്കെട്ടുകളൊക്കെ അപ്പം നേരെ ചെന്ന് ഇടിച്ചാ നമുക്കങ്ങനെ അപകടം വരാം അതൊന്നും അതൊന്നും സുരക്ഷിതല്ല നമുക്ക് അപ്പം എപ്പോൾ പോയാലും നമ്മൾ ഒന്നിലധികം ആൾക്കാർ അത് ഒന്നിലധികം ആൾക്കാർ മാത്രം പോര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നമ്മൾ ലൈഫ് ജാക്കറ്റ് അതുപോലെ തന്നെ ഈ വലിയ ട്യൂബുകള് അതുപോലെ തന്നെ എയറ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിനാൽ നമ്മൾ അത്യാവശ്യം പ്രഷറ് കൊടുത്താലും താഴ്ന്നു പോകാത്ത എന്തേലും ഉള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ കടലിലക്കെ ആണേലും ഇപ്പോൾ ഒരു അങ്ങനെക്കെയാകുമ്പോൾ ബോട്ട് മറിഞ്ഞു ഇപ്പം കരേലോട്ട് എത്തണം അങ്ങനേക്കെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിലിത് വേണം അതാണ് വെള്ളത്തിനെപ്പഴും നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം അടി ഒഴുക്കില്ലാ വേണമെങ്കിൽ കുറച്ച് കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അടിയൊഴുക്ക് വരാം പിന്നെ നമുക്ക് എത്ര വലിയ നീന്താനറിയാവുന്ന ഒരാളാണെ പോലും നമുക്ക് അടിയൊഴുക്കൊള്ള സ്ഥലങ്ങളിൽ നീന്തുമ്പോൾ നമ്മുടെ ഒരു കണ്ട്രോള് പോയിട്ട് നമുക്ക് നീന്തൽ നമ്മൾ ഒഴുകി പോകും അത് നമുക്ക് എത്ര വലിയ നീന്തലറിയാവുന്ന ആളാണെങ്കിലും നമ്മളൊഴുകി പോകും അതുപോലെ തന്നെ നമ്മൾ നീന്തുമ്പോൾ എപ്പോഴും ഈ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മടെ ഇപ്പം ഇപ്പം ഒരാളെ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോരാളൊരു ചൂണ്ടയിടാൻ പോയി ചൂണ്ടയിടാൻ പോയപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തൊരു തടാകത്തിൽ ചൂണ്ടയിടാൻ പോയി തടാകത്തിലോട്ട് പോണോങ്കിൽ നമുക്ക് വലിയൊരു വലിയൊരു വലിയൊരു പുഴ കടക്കണം അപ്പം നീന്തി കടക്കണ്ട ഒരവസ്ഥ വരണം അപ്പം അവിടെ വള്ളമോ ബോട്ടോ അങ്ങനെ ചങ്ങാടമോ ഒന്നും ഇല്ല നീന്തിക്കടക്കണം അത്രക്ക് ചൂണ്ടയിടൽ അത്രക്ക് പാഷനായിറ്റൊരാളാണെങ്കിൽ അയാൾ മീൻ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള കിട്ടൂന്ന് ഉറപ്പുള്ള ഇങ്ങനെ ഒരു ക്രെസായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഒറ്റക്കാണെങ്കിൽ പോലും അവർ മുറിച്ച് കടക്കും എന്ന് വച്ചാൽ നീന്തി കടക്കും അത് കുഴപ്പമില്ലാതെ തന്നെ അടിയൊഴുക്കില്ലാ അത്യാവശ്യം കുറച്ച് വെള്ളമേയൊള്ളു നമുക്കറിയത്തില്ലല്ലോ അവിടുത്തെ ആഴം ഉണ്ട് എന്നാലും നമുക്ക് നീന്തി കേറാനുള്ള ഒരു ദൂരമേ ഉള്ളു പക്ഷെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കാര്യമാണു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല തിരിച്ച് വരുമ്പോൾ ഇപ്പം നമുക്കറിയത്തില്ല എന്തേലും മഴ പെയ്തപ്പോലും പെട്ടന്ന് തന്നെ ഇപ്പോൾ ഉരുൾ പൊട്ടലോ അങ്ങനെ എന്തേലും ഒണ്ടയന്ന് വച്ചോ ഇപ്പം അതുപോലെ വെള്ളൊക്കെ പെട്ടന്ന് എരമ്പി വരും നമുക്ക് പെട്ട് പോയാൽ ഒരവസ്ഥ വരും അപ്പോക്കെ നമുക്ക് നീന്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പം അതാണ് ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റോം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുക കഴിയുന്നതും അകലമുള്ള സ്ഥലങ്ങളിൽ നീന്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വലിയ ജലാശയങ്ങളിലൊക്കെ നമ്മൾ നീന്തുമ്പോൾ വഴുവഴുപ്പുള്ള പാറകളുണ്ട് പായൽ ശക്തമായ ഒഴുക്ക് ഇതൊക്കെ കാരണം നമുക്ക് നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാം അതാണ് നമ്മൾഏറ്റോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഒറ്റക്ക് പരമാവധി ഒറ്റക്ക് പോയാലും നമ്മൾ സുരക്ഷ സംവിധാനങ്ങളോടു കൂടി മാത്രം വേണം പോവാൻ ഒറ്റക്ക് പോകുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും അത്ര നല്ലതല്ല കൂട്ടം ചേർന്നോ സംഘം ചേർന്നോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത് അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ഏറ്റോം ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെ ആയിട്ടുണ്ട് അതിപ്പം നമ്മൾ എവിടെ ഏത് ചെറിയൊരു കുളത്തിൽ നീന്തിയാ പോലും നമ്മൾ സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെ നീന്തണം ലൈഫ് ജാക്കറ്റ് അങ്ങനേള്ള ചെറിയ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവൻ നമ്മളായിട്ട് കളയരുത് നമ്മളത് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഈ നീന്തി കഴിഞ്ഞ് എവിടേലും നമ്മുടെ കയ്യിൽ നിക്കാതെ വരികയോ ഒഴുക്കിൽ പെട്ട് ജീവൻ വരെ നഷ്ടപ്പെടാം നമ്മുടെ ഈ പാറകളിലൊക്കെ തല ചെന്ന് ശക്തമായിടിക്കുകയും നമ്മൾ അവിടെ മരിക്കുകയോ അങ്ങനേക്കെ ചെയ്യാൻ സാധ്യതകളുണ്ട് ഇപ്പോരോന്നിനും അതിൻറ്റേതായ സുരക്ഷാ മാർഗ്ഗം ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇത്രയാ ണ് പറയാനുള്ളത്